ബാങ്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുട്ടികളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യ കാര്യം തന്നെയാണ് എന്തെന്ന് വച്ചാൽ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ആ സമ്പാദ്യശീലം വളർത്തേണ്ടത് അല്ലെങ്കിൽ അവരത് അറിഞ്ഞിരിക്കേണ്ടത് സമ്പാദ്യശീലം വളർത്തുക എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുപോലെത്തന്നെ കുഞ്ഞ് കുഞ്ഞ് നാളിലെ തന്നെ നമ്മളിപ്പം കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുതന്നെ ബാങ്കിൽ പോയിട്ട് അവർ ഫോം ഫില്ലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ബാങ്കിന്റെ ഇടപാടുകളെ കുറിച്ചൊരു തൻ്റെ അക്കൗണ്ടിലേക്ക് ഒരിക്കൽ കുറച്ച് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്ന ആ ഒരു ക്യാഷൊക്കെ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അവർക്ക് അത് സ്വയം കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു കാര്യപ്രാപ്തി അതുപോലെ തന്നെ ബാങ്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആ ഒരു ആ ഒരു പ്രവണത അതൊക്കെ അവരിൽ അത് ചെറുപ്പം മുതലേ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് പണ്ടുള്ള ആൾക്കാർ ഇപ്പം വളരെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ബാങ്കിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു വിധം ബാങ്കിന്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരു അവസ്ഥയിൽ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും ഇപ്പത്തെ കുട്ടികൾക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് തീർച്ചയായിട്ടും അല്ലെങ്കിൽത്തന്നെ ആണെങ്കിലും ഇപ്പം ഒരു വായ്പ്പ വായ്പ്പളെയും നികുതികളെയും അതിനെ കുറിച്ചിട്ടൊക്കെ അത് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തീർച്ഛയായും ഞാൻ ഇങ്ങനെയുള്ള പാഠ്യ പാഠ്യപദ്ധതിയിൽ ബാങ്കിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് വളരെ നല്ല കാര്യം തന്നെ ആണെന്നാണ് എന്റെ അഭിപ്രായം അത് പ്രാവർത്തികമാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്